കുറ്റകൃത്യങ്ങളുടെ രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ചിലവരിൽ മനുഷ്യരിൽ നമുക്കെത്ര എന്തുണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല അവരിൽ കുറ്റം ചെയ്യാനുള്ള വാസനയുള്ള അവൻ്റെ ബ്ലഡിൽ ഉള്ളത് ഉള്ള ആൾക്കാരാണ് അതിൽ കൂടുതലും നിങ്ങൾക്ക് അവർക്കിപ്പോൾ ദാരിദ്ര്യം കൊണ്ടാണ് അവർ ഈ കുറ്റകൃത്യങ്ങളിലേർപ്പെടുന്ന പിടിച്ചു പറിയിലോ അല്ലങ്കിൽ ചെയിൻ പൊട്ടിക്കുന്നതിലോ അല്ലെങ്കിൽ പോക്കറ്റടിക്കുന്നതിലോ ഒക്കെ ആണ് എങ്കിൽ ഈ പിടിച്ചു പറിച്ചും കാശുകൊണ്ടിവർ ഈ ദാരിദ്ര്യം അകറ്റാൻ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് അത് ദുരുപയോഗം പെട്ട് അനാവശ്യമായിട്ട് കളയുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അർഥം ദാരിദ്യ്രം കൊണ്ടല്ല അവരത് ചെയ്യണത് ചിലരുടെ ബ്ലഡില് അതുണ്ട് അവർക്കത് അത് ചെയ്തേ പറ്റുള്ളു പണ്ട് ഏതോ ഒരു കള്ളൻ പറഞ്ഞ പോലെയാണ് അവന് രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല വല്ല ചെറിയ ചെറിയ മഴ ചാറ്റൽ മഴയത്ത് കിടക്കാൻ ഉറക്കം വരുന്നില്ല എനിക്ക് ഇപ്പോൾ കക്കണം തോന്നുമ്പോൾ ഞാൻ പോയി കക്കുന്നു അതാണ് പറയുന്നത് പിന്നെ ഗുണ്ടകൾ എന്തിനാണ് ഗുണ്ടകളുടെ കുറ്റകൃത്യങ്ങളാണിപ്പോൾ കൂടുതൽ അതിനൊരു പരിധി വരെ ഈ നാട്ടിലെ സർക്കാർ അല്ലെങ്കിൽ ഈ നാട്ടിലെ പാർട്ടിയാണ് അതിൻ്റെ മെയിൻ ചുക്കാൻ പിടിക്കുന്നത് കുറ്റവാളികൾ ഉണ്ടാവുന്നതല്ല കുറ്റവാളികളെ ഉണ്ടാക്കുന്നതാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവർക്ക് വേണ്ട എല്ലാ വിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക അവരെക്കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാക്കാവുന്ന കാര്യങ്ങൾ ചെയ്യിക്കുക അങ്ങനെയാണ് കുറ്റകൃത്യങ്ങളുണ്ടാവുന്നത് അതുപോലെതന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തവനെ ശിക്ഷിക്കാൻ അനുവദിക്കാതിരിക്കുക കുറ്റകൃത്യങ്ങൾ ചെയ്തവനെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാനോ അല്ലെങ്കിൽ അവനെ വിചാരണ ചെയ്യാനോ സമ്മതിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഈ നാട്ടിലെ സാധാരണ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുകയാണ് അത് പാർട്ടികളുടെ ആവശ്യമാണ് പാർട്ടിക്ക് താൽപ്പര്യം അനുസരിച്ചാണ് ആ ഈ നാട് ഭരിക്കുന്ന പാർട്ടിയാണ് ഒരു തൊണ്ണൂറു ശതമാനവും ഈ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദി എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ദാരിദ്രം കൊണ്ടോ തൊഴിലില്ലായ്മ കൊണ്ടല്ല തൊഴിലില്ലായെങ്കിൽ അന്യ നാട്ടിലെ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ആൾക്കാർ തൊഴിൽ ചെയ്യാൻ വരില്ലല്ലോ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് തൊഴിലില്ലാ തൊഴിലില്ലാ എന്ന് പറയുന്നത് വെറുതെ ശുദ്ധ അസംബന്ധവും നുണയുമാണ് കാരണം ഇവന് തൊഴിൽ ഒരു തൊഴിലുമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എങ്ങനെ വൈകുന്നേരമാവുമ്പോൾ കള്ളുകുടിക്കാൻ പറ്റും ഈ ചിന്ത ഇവൻ്റെ മനസ്സിലുണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന സർക്കാരാണ് ഇതിൻ്റെ മെയിൻ കാരണക്കാർ എന്ത് കുറ്റം ചെയ്താലും ശരി അവനെ ശിക്ഷിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ സർക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അതാണവൻ്റെ വോട്ട് ബാങ്ക് അങ്ങനെയാണ് അവർ വോട്ട് നേടുന്നത് അങ്ങനെയാണ് അവർ അധികാരത്തിൽ വരുന്നത് ആ അധികാരത്തിനെ നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കുറ്റവാളികളെ കുറ്റവാളികളെ അവരുടെ അരുമസന്താനങ്ങളായിട്ട് പാലൂട്ടി വളർത്തുന്നു അതുകൊണ്ടാണിവിടെ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് അല്ലാതെ ദാരിദ്രം കൊണ്ടോ തൊഴിലില്ലായ്മ കൊണ്ടോ ആണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് തെളിവുകളില്ല